ഹലോ ഹലോ നയന്റീൻ എയിറ്റീസ് അല്ലെ അപ്പോൾ എനിക്ക് അവിടെന്ന് മറ്റേ പിടീം കോഴീം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടീട്ടായിരുന്നു ഉണ്ട്ല്ലേ ഒരു പിടീം കോഴീക്കും റേറ്റ് എങ്ങനെയാണ് വരുന്നത് വൺ എയ്റ്റിയാ അത് അത്യാവശ്യം നല്ല വൺ ട്വന്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാര്യൊക്കെ ഉണ്ടാവില്ലേ ഉണ്ട് ലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കുറച്ച് പേരുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്കിവിടെ കൊണ്ടത്തെരുവോ അതായത് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു പതിനഞ്ച് പേർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വേണം നമുക്ക് പിടീം കോഴീം ഒരു പത്ത് പേർക്ക് മതി അഞ്ച് പേർക്ക് ബിരിയാണി മതി ചിക്കൻ ബിരിയാണി പിന്നെ ഒരു നാല് സദ്ദ്യക്കൂടെ എടുക്കാൻ പറ്റുമോ സദ്യക്ക് എത്രയാണ് റേറ്റ് വരുന്നത് വൺ സിക്സ് വൺ സിക്സ്സ്റ്റിലെ ഓക്കെ അപ്പോൾ എത്ര കൂട്ടം കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ലെ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പോൾ ഡെലിവറി ചാർജ് അങ്ങനെന്തെലൊക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് മീനങ്ങാടി ആണ് മീനങ്ങാടീന്ന് കുറച്ച് മീനങ്ങാടി കുറച്ച് ഇപ്പുറത്ത് ഇത് കല്പറ്റയല്ലേ കൽപറ്റെന്ന് മീനങ്ങാടി വരെ നിങ്ങൾക്ക് ഡെലിവറി ഒക്കെയില്ലേ ഉണ്ട് ലെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും മറ്റേ നമ്മുടെ സ്പ്രൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുകൂടെ അത് ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്ററിന്റെ എടുത്ത് വെച്ചോട്ടോ

അതെ രണ്ട് ലിറ്ററിൻ്റെ രണ്ട് ക്യാന് ഈ സാധനങ്ങളും പിന്നെ നമ്മളെന്തെങ്കിലും ബില്ല് പേ ചെയ്യാനോ ഇപ്പം അതോ നിങ്ങൾ വന്ന് കഴിയുമ്പോൾ ഡെലിവറി ബോയിന്റടുത്ത് കൊടുത്താൽ മതീലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഞാൻ വാട്ട്സാപ്പ ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ക്യാഷും കൊടുത്തുവിട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇപ്പത്തന്നെയൊന്ന് കൊടുത്ത് വിടാമോ ഓക്കെ എന്നാൽ ഓക്കെ